ഞാനൊരു ദിവസം ഒരു യാത്ര പോവുകയുണ്ടായി ആ യാത്രയിൽ ഞാൻ നല്ല ഒരു കാഴ്ച കാണുകയുണ്ടായി അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ആ കാഴ്ച ഞാനെൻ്റെ ഒരു ഫോണിലേക്കു പകർത്തുകയും ചെയ്തു ഒരു ചിത്രമായി ഞാനിന്നും സൂക്ഷിക്കുന്നുമുണ്ട് എന്തെന്നാൽ അത് ഒരു എന്നെ വളരെ അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു കൂട്ടിലടച്ചിരുന്ന ഒരു പ്രാവിനെ ആ പ്രാവിനെ വാങ്ങിച്ച അയാൾ തന്നെ കൂട്ടിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ കാഴ്ച്ച ആ കാഴ്ച്ച ഞാനെൻ്റെ ഫോണിലേക്ക് പകർത്തുകയും ചെയ്തു ആ ചിത്രം എന്നും എൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷം നൽകുന്നുണ്ട് കാരണമെന്തെന്നാൽ നമ്മൾ നമ്മളെപ്പോലെതന്നെ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടിലകപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ വളരെ അധികം ഉയരത്തിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ ആ പ്രാവ് പറന്ന് ഉയരങ്ങളിലേക്കെത്തുന്നു ഉയരങ്ങളിലേക്ക് എത്തി മോചിതയാവുന്നതു പോലെതന്നെ നമ്മളോരുരുത്തരും ഉയരത്തിലേക്ക് പറക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ആ കാഴ്ചയിൽ നിന്നും വ്യക്തമായത്